ഹലോ കേരള ബാങ്ക് അല്ലെ സാറെ എനിക്കൊരു ലോണ് വേണമായിരുന്നെ ഈ സ്വയം തൊഴിലിന് വേണ്ടീട്ട് കോഴിഫാമ് തുടങ്ങാൻ വേണ്ടീട്ടാണെ അപ്പോൾ ലോണ് കിട്ടുമോ അതെയല്ലേ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിപ്പോൾ പലിശ എത്ര ശതമാനമാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനി ഇത് എത്ര വർഷത്തെ അടവായിരിക്കും എത്ര വർഷം കൊണ്ട് അടച്ച് തീർ മൂന്ന് വർഷം കൊണ്ട് അടച്ച് തീർക്കണോ ആ ആ ആ ഇപ്പം ഈ കുടുംബശ്രീക്ക് അങ്ങനെ കിട്ടുമോ അതോ വ്യക്തികൾക്കോ കുടുംബസ്ത്രീകൾക്ക് ഇങ്ങനെ സംഘങ്ങൾക്ക് കിട്ടുമോ സംഘ ഇപ്പോൾ എത്ര ലക്ഷം വരെ കിട്ടും സംഘങ്ങൾക്കാണെങ്കിൽ കിട്ടൂല്ലേ ഇപ്പോൾ വ്യക്തികൾക്ക് ഇങ്ങനെ ഒറ്റക്ക് തുടങ്ങാൻ ആണെങ്കിലോ കിട്ടൂല്ലേ ആ അപ്പോൾ നമ്മൾ ഈ സ്ഥലം വന്ന് ഈ നമ്മൾ തുടങ്ങുന്ന ഇത് വന്ന് നോക്കുമോ ബാങ്കിൽ നോക്കുമല്ലേ ആ ആ അപ്പോൾ അപ്പം എന്താ അപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് വെക്കണമല്ലേ തുടങ്ങി ഈ പുതിയ പുതിയ ഉള്ള സംരംഭം തുടങ്ങാൻ വേണ്ടി പുതു ഒന്ന് പുതുക്കാൻ വേണ്ടീട്ട് കിട്ടുമോ ലോൺ കിട്ടൂല്ലേ ആ ആ ആ അപ്പോ നമ്മള് ബേങ്കിലേക്ക് വന്നാൽ വിശദാമായിട്ട് അറിയാൻ പറ്റുമായിരിക്കില്ലെ ബേങ്ക് ഇന്ന് ലീവ് ആണോ ബേങ്ക് എപ്പോഴായിരിക്കും ബേങ്കിലേക്ക് വരേണ്ടത് അതെയല്ലേ ആ ആ ആ ആ ശരി സാറേ അപ്പോൾ ലോണ് രണ്ടുമൂന്നു പേരുണ്ടേ അപ്പോൾ അവരുകൂടെ ചോദിക്കാൻ പറഞ്ഞു എന്നോട് ആ അപ്പോൾ അവരോട് കൂടി ഒന്ന് പറയട്ടെ സംഘമായിട്ട് ആ സംഘമായിട്ട് തുടങ്ങണമെങ്കിൽ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ ലോൺ എങ്ങനെയാ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം പലിശ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ ആ ശരി സാർ ഓക്കെ താങ്ക് യൂ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി താങ്ക് യൂ സാർ